ഏറ്റവും കൂടുതൽ തുന്നുകയും നെയ്യുകയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുന്നിയെടുക്കാൻ എളുപ്പമുള്ളൊരു വസ്ത്രം സെറ്റ് സാരി മുണ്ട് കൈത്തറി സാധനങ്ങളാണ് നമുക്കേറ്റവും കൂടുതൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു തുണിയായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് കൈത്തറി വസ്ത്രമെന്ന് പറഞ്ഞാല് അത് സ്വന്തമായിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിലൊരു സെറ്റ് സാരി തുന്നിയെടുക്കാൻ പറ്റും കാരണം കൂടുതല് അതിനകത്ത് വേറെ എംബ്രോയ്ഡറി സ്റ്റിച്ചുകളൊന്നും വേണ്ട ചെറിയ ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു സൈഡ് അതായത് തേരുവശം മാത്രം കട്ടികൂടിയ നൂലുകൾ പാകിക്കൊണ്ട് സെറ്റ് സാരി വലിയ തുന്നലോ വലിയ എംബ്രോയിഡറികളോ ഒന്നുമില്ലാതെ നമുക്ക് നെയ്തെടുക്കാൻ പറ്റുന്നൊരു വസ്ത്രം ഇപ്പം സെറ്റ് സാരിയും കൈത്തറി മുണ്ടുകളുമാണ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും എളുപ്പത്തില് പിന്നെ മെച്ചപ്പെട്ട രീതിയില് അത് വേഗരീതിയില് ചെയ്യുകയെന്ന് പറഞ്ഞാല് തുണിയും നൂലുകളും വാങ്ങി സ്വന്തമായി തറിയിൽ അത് നെയ്തെടുക്കുന്നതാണ് ഇപ്പോള് ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു വസ്ത്രമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നൂലുകൾ വാങ്ങി ചെറിയ നിലത്തറിയില് തറിയുണ്ടാക്കി അതിൽ നെയ്തെടുക്കുന്നതാണ് സെറ്റ് മുണ്ട് കൈത്തറി മുണ്ടുകള് അതാണ് ഏറ്റവും വേഗത്തിലെന്ന് പറഞ്ഞാൽ അതത്ര വേഗത്തിലാകാൻ പാടില്ല എന്നാലും ഏകദേശം നല്ലവണ്ണം വർക്ക് ചെയ്യുന്നവരാണെങ്കില് ഒരു മുണ്ട് രണ്ട് മുണ്ടൊക്കെ നെയ്തെടുക്കുന്നവരുണ്ട് സെറ്റ് സാരിയാണെങ്കിലും സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അതിൻ്റെ സ്പീഡുകളുണ്ട് ഉള്ളവർക്കാണെങ്കിൽ അത് നെയ്തെടുക്കാനും പറ്റും അതുകൊണ്ട് സെറ്റ് സാരിയും കൈത്തറി മുണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നിർമ്മിച്ചെടുക്കാന് പറ്റുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ കൈത്തറിയൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു പ്രാബല്യത്തില്ലാത്തത് കൊണ്ട് അത് ഞങ്ങളുടെ നാട്ടിലത് കുറവാണ് എന്നാലും എനിക്ക് ആ തറി ഇഷ്ടമാണ് കൈത്തറി തുണികള് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്നൊരാളുമാണ്